പതിനഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ആറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുപത്തി രണ്ട് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഇരുപത്തി എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട്